സത്യംപറഞ്ഞാല് ഈ മാധ്യമ സ്വാതന്ത്രത്തെക്കുറിച്ച് ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം പല പല അഭിപ്രായങ്ങളാണ് ഓരോരോ പത്രങ്ങളിലും മാധ്യമങ്ങളിൽനിന്നും നമുക്ക് ലഭിക്കുന്നത് അത് പല രീതികളിലാണ് അവര് അവതരിപ്പിക്കപ്പെടുന്നതും ഇപ്പോള് പറയുന്നത് മുഴുവൻതന്നെ സത്യമാകണമെന്നുമില്ല എല്ലാനമ്മ എല്ലാംതന്നെ നമ്മള് വിശ്വസിച്ചിരുന്നാല് അത് ശരിയാകത്തുമില്ല അതുകൊണ്ട് പല പല പത്രങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അറിവ് എല്ലാങ്കൂടെ നോക്കിയാലും എല്ലാംതന്നെ സത്യമാകണമെന്നുമില്ല ഇപ്പോള് ഒരു കാര്യം നമ്മളറിഞ്ഞാല് അത് പെരുപ്പിച്ച് പല രീതിയിലാക്കി ഒടിച്ചെടുക്കുന്ന മാധ്യമ സംസാരങ്ങളാണിപ്പോള് നമ്മളിപ്പോള് കേട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ അഭിപ്രായം തന്നെ പണ്ടുള്ള കാ കാലത്ത് നമ്മളിത് സത്യസന്ധമായ രീതിയിലായിരുന്നു ഓരോരോ കാര്യങ്ങളും നമ്മൾക്കത് കിട്ടിയിരുന്നതും നമ്മളതനുസരിച്ച് മുന്നോട്ട് പോകുന്നതും പക്ഷെ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ രീതിയനുസരിച്ച് നമ്മളത് കിട്ടിയതനുസരിച്ച് നമ്മള് മുന്നോട്ട് പോവുകയാണെങ്കില് നമ്മള് ചെന്ന് നമ്മളുടെ ഉള്ള വിശ്വാസംകൂടെ ഇല്ലാതാകുന്ന രീതിയിലാണ് നമ്മളിപ്പോള് ഓരോരോ കാര്യങ്ങള് കേക്കുകയും കാണുകയും ചെയ്യുന്നത് ഇപ്പോള് കൂടുതലും എന്തുവാ പീഡിപ്പിക്കപ്പെടുന്നതും കുഞ്ഞു പിള്ളേരെപ്പോലും നമുക്ക് വിശ്വസിച്ച് വെളിയിലോട്ട് പോലും ഇറക്കി ഇരുത്താനോ ഒന്നിനും കഴിയാന്മേലാത്ത അവസ്ഥകളാണ് നമക്കിപ്പോള് വന്നേക്കുന്നത് അപ്പോള് എന്തേലുമൊരു ഇത് വന്നുകഴിഞ്ഞാലത് പെരുപ്പിച്ചുകാണിച്ച് മാധ്യമ പ്രവർത്തകര് അതിനെപ്പറ്റി പറയുകയും എടുക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല ആത്മധൈര്യമുള്ളവര് മാത്രമേ അവർക്ക് അവരവർക്ക് കിട്ടിയ അനുഭവങ്ങളാണേലും വെളിയിലോട്ട് പറയാനും എടുക്കാനുമൊക്കെ അവർക്ക് ധൈര്യം കിട്ടത്തുള്ളൂ കാരണം അവര് മാധ്യമപ്രവർത്തകരെങ്ങനാണ് അതിനെ മുന്നോട്ട് വളച്ചൊടിക്കുന്നതെന്ന് നമുക്ക് പറയാന് പറ്റത്തില്ല അതുകാരണം കുറച്ചാത്മധൈര്യം ഉള്ളവര് മാത്രമേ അതിനെ എന്തേലും അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിലവര് പറയത്തുള്ളൂ അല്ലാത്തവര് അത് മിണ്ടാതെ ഇരിക്കത്തേ ഉള്ളു പിന്നെ ആരേലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതനുസരിച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ അറിഞ്ഞും കേട്ടുമൊക്കെ വരുമ്പഴത്തേന് വന്നുകഴിയുമ്പഴ്ത്തേന് പിന്നെ അതിന്റെ ഇരട്ടി പറയുകയും പിന്നെ അവർക്കാണ് സംഭവിക്കാത്തതുങ്കൂടെ അവരത് പറയുകയും എടുക്കേയുമൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മളീ പറയുന്ന കാര്യങ്ങളെയെല്ലാം തന്നെ നമ്മള് വിശ്വസിച്ചു മുന്നോട്ട് പോകണോന്നുമില്ല പിന്നെയീ അതൊക്കെ ഈ യുഗത്തിൻറ്റൊരു പ്രത്യേകതയായിരിക്കും മുന്നോട്ടുള്ള ജീവിതവും ഇങ്ങനേ വിശ്വാസമില്ലാത്തൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു ഒരുതരം പ്രവർത്തനമാണ് ഇപ്പോള് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നേ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കില്